കുട്ടനാടാണ് ഞങ്ങളുടെ പ്രദേശം വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വരാനാഗ്രഹിക്കുന്ന സ്ഥലം ആലപ്പുഴയുടെ മനോഹാരിതയും വള്ളം കളിയുടെ പാട്ടു കേൾവിയും അതുപോലെ തന്നെ കഥകളി സംഗീതം ഏതൊരു വിനോദസഞ്ചാരിയെയും ആകർഷിക്കുന്ന ഒരു കേന്ദ്രമാണ് ആലപ്പുഴ വള്ളം കളി വള്ളം കളിയാണ് ഇവിടുത്തെ ഏറ്റവും വിശിഷ്ടമായ ഒരു വിനോദം എല്ലാ വർഷവും നടക്കുന്ന പായിപ്പാട്ട് ചുണ്ടൻമാരുടെ വള്ളം കളികൾ നിരവധി വള്ളം വള്ളങ്ങൾ നിരത്തിലിറങ്ങുന്നു കാണികൾ പതിനായിരങ്ങൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നെഹ്രു ട്രോഫി വള്ളം കളി എല്ലാ വർഷവും കെങ്കേമമായി തന്നെ കൊണ്ടാടുകയാണ് വള്ളം കളിയെപ്പറ്റി പറയുകയാണെങ്കിൽ അത് കേരളത്തിൻ്റെ മാത്രം ഒരു സ്വന്തം അഹങ്കാരമാണ് ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട്ട് കായലിൽ നിരവധി വള്ളങ്ങൾ ആരു ജയിക്കുമെന്ന ഇതിലൂടെ കടന്നു പോകുന്നു വള്ളം കളി എല്ലാവർക്കും ഒരു ആവേശം തന്നെയാണ് കാണുന്നവർക്കും തുഴയുന്നവർക്കും അത് അനൗൺസ് ചെയ്യുന്നവർക്കും ഒരേ പോലെ തന്നെ ആവേശവും ഉന്മേഷവും നൽകുന്ന ഒരു പ്രതിഭാസമാണ് വള്ളം കളി അതുപോലെ തന്നെ ഓണത്തിന് വടം വലി എന്ന ഒരു കായിക ഇനം കൂടിയുണ്ട് വടം വലിയിലൂടെയാണ് യുവതലമുറയുടെ ആവേശവും അവർ എത്രത്തോളം അദ്ധ്വാനിച്ചിട്ടാണ് ഒരു വടം വലിയിലൂടെ വിജയം കൈവരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു വടം വലിക്കായി അണി നിരക്കുന്ന യുവ തലമുറ അവരുടെ എല്ലാ ഊർജ്ജവും ശക്തിയും നൽകിയാണ് ആ കയർ വലിക്കുന്നത് ശക്തന്മാരായവരെ കൊണ്ടു മാത്രമേ ആ വടത്തിലൊന്ന് തൊടുകാൻ പോലും സാധിക്കുകയുള്ളു അല്ലാത്തവർ തോറ്റു പിന്മാറണം വള്ളം കളിക്കുമ്പോൾ വള്ളം കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് കാരണം സ്ത്രീ ജനങ്ങൾ പോലുമിപ്പോൾ വള്ളം കളിക്കാനിറങ്ങുകയാണ് കാരണം ഓരോരുത്തർക്കും അതിൻ്റെ ആവേശമാണ് വള്ളം കളിക്കണം ജയിക്കണം അതുപോലെ തന്നെ എല്ലാവരുടെയും സിരയിൽ കൂടി ഓടുന്ന രക്തം തിളക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും വള്ളം കളി കാണുന്നതിനായി ഇവിടേക്കു വരുന്നു എനിക്കു തോന്നുന്നു നമ്മുടെ നാട് വിട്ട് പുറത്തു നിൽക്കുന്ന ഏതൊരു വിനോദസഞ്ചാരിക്കും അമേരിക്ക ആഫ്രിക്ക അവിടെയുള്ളവർക്കൊക്കെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു ടൈം കാണേണ്ട ഒരു പ്രതിഭാസമാണ് വള്ളം കളി കാരണം അവിടെ വെള്ളം പോലും ഇങ്ങനെ നിൽക്കുവോളം അതുപോലെ തന്നെ വലിയ കായലൊന്നുമില്ലാത്ത സ്ഥലമാണല്ലോ അപ്പം നമ്മുടെ നാട്ടിൽ വന്നിവിടുത്തെ കായലിലും കുളത്തിലൊക്കെ വള്ളം കളിക്കുന്നതു കാണുമ്പോൾ അവർക്കും തീർച്ചയായുമതൊരുപാട് ഇഷ്ടപ്പെടും കാരണം നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റിയ ഒരു എന്താ പറയുന്നത് എപ്പോഴും കാണാൻ പറ്റില്ല ഒരു സീസണുണ്ടീ വള്ളം കളിക്ക് ആ സമയത്തു വേണേ നിങ്ങൾക്കു തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കാണും അറിയാനൊക്കെ പറ്റും അതുപോലെ തന്നെ വള്ളം കളിക്കുന്നത് ഒരു വള്ളത്തിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഒരേ നീളത്തിലുള്ള മുണ്ടും ബനിയനും തലയിലൊരു തോർത്തുമൊക്കെ കെട്ടിയാണ് വള്ളം കളിക്കുന്നത് ആ തുഴയുന്ന കാണുമ്പോൾ തന്നെ നമ്മളോരോരുത്തരും കയ്യടിച്ചു പോകും നമ്മൾക്കത്രക്ക് എന്താ പറയുന്നത് ഉൽ ഉത്സാഹമാണ് അവർ അവർ തുഴയുമ്പോൾ നമുക്ക് നമ്മളെങ്ങാണ്ട് ചെയ് കളിക്കുന്നതു പോലെ നമുക്ക് തോന്നും